ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് വളരെ വിനോദം നൽകുന്ന ഒന്നായി കാണാൻ സാധിക്കും അതായത് എനിക്ക് കൊച്ചിലെ തൊട്ട് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് കാണുന്ന കാര്യങ്ങൾ പിന്നീട് കണ്ടെത്താൻ അല്ലെങ്കിൽ പിന്നീട് അതായതൊരു പ്രത്യേക കാഴ്ച്ചകളും മറ്റൊരു ഒരു ഇപ്പോൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആനയെ കാണുമ്പോഴെങ്കിലും പിന്നീട് ആനയെ കാണണമെന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ആ കണ്ട ഓർമ്മകളെ നമുക്ക് റീകലക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് പിന്നീട് ഫോണിൻ്റെ വരവോടുകൂടിതന്നെ ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് സാധാരണക്കാരുടെ ഓരോരുത്തരുടേയും കയ്യിൽ ഒതുങ്ങുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ ഫോണിൻ്റെ എന്താ ഒരു ഫോണിൻ്റെ ഒരു ഫീച്ചറായിട്ടുള്ള ക്യാമറകൊണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫി സാധ്യമായി വന്നു പിന്നീട് എന്താ ക്യാമറയും മറ്റുമായിട്ട് നമുക്ക് കൂടുതലായിട്ടും ഫോട്ടോഗ്രാഫിയിലേക്ക് കടക്കാനായിട്ടുള്ള വഴികളും മറ്റും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെതന്നെ വരികയും ചെയ്തു ഫോട്ടോഗ്രാഫി ഒരു വിനോദ പ്രവൃത്തിയായിക്കൊണ്ട് നടക്കാനുള്ളൊരു പ്രചോദനം എന്നു പറയുന്നത് എൻ്റെ പഴയകാലം ഓർമ്മകൾ ഞാൻ തിരിച്ചു പിടിക്കുന്നത് എന്തുകൊണ്ടും ഫോട്ടോഗ്രാഫിയുടെ അനന്തര ഫലമായിട്ടുള്ള ഫോട്ടോകളിലൂടെ മറ്റുമാണ് അതുകൊണ്ടുതന്നെ എന്താ ഈ ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്കൊരു വിനോദം സാധ്യമാകുന്നു അതായത് വിനോദ യാത്രയ്ക്കും മറ്റും പോകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഫോണും ഫോട്ടോഗ്രാഫി അതായത് ഓർമ്മകളെ മധുരിക്കും ഓർമ്മകളെ നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നത് തന്നെ ഒരു തരത്തിൽ ക്യാമറകളും അതുപോലെതന്നെ ഈ ഫോട്ടോഗ്രഫിയുടെ ഒരു കഴിവ് തന്നെയാണത് ഏതൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മറ്റും നമുക്കൊരു ഫോട്ടോ ആയിരം വാക്കുകൾക്ക് അതീതമാണ് ഒരു ചിത്രം എന്നു പറയുന്നത് ആ ചിത്രത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ഒത്തിരി തിരിച്ചു പിടിക്കുവാനും അതുപോലെതന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും ഏതൊരു കാര്യവും നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കണ്ടുവരുന്നൊരു രീതിയാണ് എന്ത് ഈ ഒരു ചിത്രത്തിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഉദാഹരണത്തിൽ ഒരു പരസ്യം പോലും ആയിരം വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നതിലും ഒരു ചിത്രത്തിലൂടെ വളരെ മനോഹരമായി തന്നെ അതിലെ കണ്ടൻ്റുകൾ മൊത്തം നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് സാധിക്കും അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കാം അവിടെ നമ്മൾ പറയുന്നതും ഒരു ചിത്രത്തിൽ ഉദാഹരണമായി പറഞ്ഞാൽ സാറാസിൻ്റേയും മറ്റും പരിസ്യത്തിൽ എത്രത്തോളം നമ്മൾ കണ്ടൻ്റുകൾ അവിടെ എഴുതിപ്പിടിപ്പിച്ചാലും ഒരു ചിത്രത്തിലൂടെയും മറ്റും ആ കറി പൗഡറിൻ്റെ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരു സിനിമതാരത്തെക്കൂടി ആഡ് ചെയ്ത് നമുക്കത് കാണിക്കുകയാണെങ്കിൽ നമുക്കെത്രയും പെട്ടെന്ന് കാര്യങ്ങളും വിവരങ്ങളും മറ്റും മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെതന്നെ ഫോട്ടോഗ്രാഫി എന്നു പറയുന്നത് നമ്മുടെ ഒരു വിനോദമുളവാക്കുന്ന ഒന്നുകൂടിയാണ് നമ്മൾ വിനോദയാത്രയ്ക്കും അതുപോലെതന്നെ മറ്റു സ്ഥലങ്ങളെ സന്ദർശിക്കാനും മറ്റുമായി പോകുമ്പോൾ ഒരു വിനോദം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതിലൂടെ അതായത് നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് വിനോദപൂർണ്ണമാക്കുവാനും ആ മൊമൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും ഇതിലൂടെ നമുക്ക് അതിവേഗം സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിനോദം വിനോദവും അതുപോലെ തന്നെ വിജ്ഞാന പ്രദവുമായിട്ടുള്ള ഒന്നാണ് ഫോട്ടോഗ്രഫി എന്നു പറയുന്നത് ഫോട്ടോഗ്രാഫി ഒരു വിനോദ പരിപാടി തന്നെയാണ്